കർഷകരുടെ കാലങ്ങളായുള്ള പരാതി അവരുടെ പിന്നെ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില ഇല്ല അതാണ് അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ പറഞ്ഞാല് കർഷകർ മണ്ണിൽ പണിയെടുക്കുന്നില്ല പണിയെടുത്ത് കഴിഞ്ഞാൽ അതിന് നല്ല ഒരു വില കിട്ടണ്ടേ ഗവൺമെന്റിൽ നിന്നും നല്ല ഒരു എല്ലാ സാധനങ്ങൾക്കും അതിൻ്റെതായ രീതിയിലുള്ള വില നിശ്ചയിച്ചിട്ട് അത് കർഷകർക്ക് കൊടുക്കണം എങ്കിൽ മാത്രമേ അവർക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളു നേരെ മറിച്ച് അവര് വില കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് വിപണയിൽ കൊണ്ടുപോയി സാധനങ്ങൾ വിൽക്കാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല ഈ കീടനാശിനി തളിച്ച് ഉണ്ടാക്കുന്ന വിഷം ആയതുകൊണ്ടായിരിക്കും അവർ അതിനൊന്നും വില കിട്ടാത്തത് ഇഞ്ചിക്കാണെങ്കിൽ ഒട്ടും വിലയില്ല പിന്നെ റബ്ബറിനാണെങ്കിൽ വിലയില്ല അതുപോലെ മറ്റുള്ള കൃഷികൾക്കൊന്നിനും തന്നെ വിലയില്ല ഇപ്പം കാപ്പിക്ക് മാത്രം കുറച്ച് വില ഉണ്ട് അതു മാത്രം നേടിയെടുക്കുന്നു അതുകൊണ്ട് കർഷകർക്ക് കർഷകരെ വളർത്തിയെടുക്കണമെങ്കിൽ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല ഒരു അതിന് വില കൊടുത്ത് അവരുടെ ഉൽപ്പന്നങ്ങൾ ഗവണ്മെന്റ് തന്നെ ഇട്ടെടുക്കണം അങ്ങനെ വന്നാൽ നമുക്ക് കുറെ കർഷകർക്ക് ജീവിക്കുവാനൊക്കെ സാധിക്കും എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ആ പിന്നെ പറയുവാണെങ്കില് കാർഷികവിളകളുടെ വില കുറയുന്നത് കർഷകർക്ക് എന്നാ പറയേണ്ടതെന്ന് കുറെ കാര്യങ്ങൾക്ക്